കല്യാണം നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ചിലവ് എന്ന് പറയുന്നത് കുറച്ചു കൂടുതൽ തന്നെയാണ് പല രീതിയിലുള്ള വെള്ളമാണ് നമുക്ക് അവിടെ ആവശ്യം വരുക അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് കുടിക്കാൻ അതായത് കുടിക്കാനുള്ള വെള്ളം പിന്നെ പാത്രങ്ങൾ കഴുകാൻ കൈ കഴുകാൻ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള മൂന്ന് ഇത് രീതിയില് നമുക്ക് മെയിൻ ആയിട്ട് വെള്ളം ആവശ്യം വരുക പിന്നെ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അത് വേറെ കുറച്ച് അതായത് വരുന്നവർക്ക് ബാത്റൂമിൽ പോകാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേറെ അതിനും ആവശ്യം വരും നമ്മൾ അതിൽ ക്രമീകരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കൃത്യമായ രീതിയില് ചൂടാക്കി വൃത്തിയായി സൂക്ഷിക്കണം മറ്റേത് അതായത് നല്ല രീതിക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ കൊടുക്കോള്ളൂ പിന്നെ നമ്മൾ നോക്കുക പറയുമ്പോൾ ഈ കൈ കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ പൈപ്പിന് പൈപ്പ് എന്ന് പറയുമ്പോ അതിൻ്റെ മാക്സിമം നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടാങ്ക് പുതിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി അതിന് അതായത് ഒരു ഫിക്സഡ് സെറ്റപ്പിനേക്കാൾ പകരം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക അതായത് വലിയ ഇപ്പോൾ നമ്മൾ പെർമനൻറ്റ് ആയിട്ട് ഒരു ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളും കെട്ടി അതിൻ്റെ മുകളില് ഏറ്റവും മുകളിലായിരിക്കും വാട്ടർടാങ്ക് വെക്കുക അപ്പോൾ എത്ര ഹൈറ്റ് കൂടുന്നുവോ അത്രയും പെട്ടെന്ന് വെള്ളം വരാനുള്ള സംവിധാനം ആയിരിക്കും അതില് അപ്പോൾ അതിന് പകരം ഈ നമ്മൾ കൈകഴുകാൻ വേണ്ടീട്ട് കുറച്ചൊരു ഹൈറ്റിൽ ആയിട്ട് അതായത് ഒരാളുടെ ഒന്നരയടി പൊക്കത്തിൽ ഒക്കെയായിട്ട് ഹൈറ്റിൽ ആയിട്ട് ചെറിയൊരു ടാങ്ക് പോലെ വെച്ച് സെറ്റപ്പ് ചെയ്ത് അതിൽ നിന്ന് വെള്ളം വിടുന്നതാണ് ബെറ്റർ കാരണം അപ്പോ അതിൻ്റെ വെള്ളം വരുന്നതിൻ്റെ സ്പീഡ് കുറവായിരിക്കും അതായത് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഉപയോഗിക്കണെ കാട്ടിലും സ്പീഡ് കുറവായിരിക്കും അപ്പോൾ ആൾക്കാര് ആവശ്യത്തിന് മാത്രേ അതായത് കുറച്ചുനേരം നിന്ന് ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കുകയുള്ളൂ മറ്റേത് നമ്മളെ പൈപ്പ് തുറക്കുമ്പോഴേക്കും വെള്ളം നല്ല സ്പീഡിൽ വന്നാ ഒരുപാട് വെള്ളം അനാവശ്യമായിട്ട് ഉപയോഗിച്ചു പോകും ഈ കുട്ടികളാണെങ്കിലും ഇപ്പോൾ അവർ കൈ കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്ന് വെച്ച് പിന്നെ കയ്യൊക്കെ കഴുകി പിന്നെ കളിച്ച് ഓഫ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് കുറേ വെള്ളം നഷ്ടമാമായിപ്പോകും അപ്പോൾ അതിൽനിന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാത്രം കഴുകാൻ പാത്രങ്ങള് ഓരോ പാത്രവും പൈപ്പ് തുറന്നുവെച്ച് കഴുകണെകാട്ടിലും നല്ലത് കൃത്യമായിട്ട് കുറച്ചു വെള്ളം സംഭരിച്ച് ഒരുപാത്രത്തിൽ സംഭരിച്ച് വെച്ച് ചെറിയ പാത്രമൊക്കെ അതിനുള്ളിൽ ഇട്ടു കഴുകി അതുകഴിഞ്ഞിട്ട് ആ വലിയ പാത്രം കഴുകി അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ വെള്ളവും എന്താ പറയുക അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും നല്ല രീതിക്ക് കുറയാൻ പറ്റും